ആ കാര്യം ഒക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മീറ്ററിന്റെ കംപ്ലയിൻട് ആണെന്ന് ഉണ്ടെങ്കിൽ എന്തായാലും അതിന് ഒരു സൊല്യൂഷൻ വേണം എന്നിട്ട് അതിനൊരു റിപ്ലൈ മെയിൽ ഒന്നും കാര്യങ്ങൾ റിപ്ലൈ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല അതെന്താണ് കാരണം കാരണം നമ്മുടെ നമ്പർ അവിടെ അപ്ഡേറ്റ് ആകാഞ്ഞിട്ടാണോ അതോ വേറെ എന്തെങ്കിലും റീസൺ കൊണ്ടാണോ കാരണം ഇപ്പം ഇപ്പോൾ അവിടെ എൻ്റ നമ്പറും കാര്യങ്ങളും ഒക്കെ അവിടെ അപ്ഡേറ്റഡ് ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം ഇതിനൊരു പ്രത്യേകിച്ച് ഒരു എന്തെങ്കിലും സൊല്യൂഷൻ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തായാലും വേണം സോ എനിക്ക് അത് എത്രയും പെട്ടെന്ന് അതിന് ഒരു പരിഹാരം കണ്ടെത്തണം അതിനാണ് ഞാൻ ഇപ്പം നിങ്ങളെ കോൺടാക്ട് ചെയ്തത്